തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാന വിളകളിൽ ഒന്നാണ് നെല്ല് കാരണം തൃശൂർ കോൾപ്പാടങ്ങൾക്ക് വളരെയധികം പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് കോൾപ്പാടങ്ങളുണ്ട് ഈ കോൾപ്പാടത്ത് പ്രധാന വിള എന്ന് പറയുന്നത് നെല്ല് ആണ് അപ്പോൾ അതൊരു മാർച്ചിന് മുന്നെ ആയിട്ട് അതിൻ്റെ വിതക്കലും കാര്യങ്ങളുമൊക്കെ കഴിയും നമ്മുടെ വിഷുവിന് അനുബന്ധിച്ച് അത് കൊയ്ത് വിപണിയിലെത്തിക്കയാണ് ചെയ്യുക അതേ പോലെ തന്നെ നെല്ല് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാന വിള എന്ന് പറയുന്നത് തേങ്ങയാണ് ഒരുപാട് സ്ഥലങ്ങളും പറമ്പുകളും ഉള്ള വ്യക്തികളാണ് തൃശൂരിൽ കൂടുതലായിട്ടുള്ളത് അവരൊക്കെ പറമ്പിൽ നല്ല വണ്ണം തെങ്ങുകൾ ഉണ്ടായിരിക്കും അപ്പം തെങ്ങിനും അത്യാവശ്യം വളമൊക്കെ ചെയ്തിട്ട് നല്ല കായ് ഫലമുള്ള തെങ്ങുകളാണെല്ലാടും അപ്പോൾ തേങ്ങ ഒരു പ്രധാന വള ആണ് പിന്നെ അതു പോലെ തന്നെ കുരുമുളക് അതും നന്നായിട്ടുണ്ടാവും കാരണം നല്ല വെയിലും അത്യാവശ്യത്തിന് മഴയൊക്കെ കിട്ടുന്ന കാലവസ്ഥ ആയത് കൊണ്ട് കുരുമുളക് നന്നായിട്ടുണ്ടാവും പിന്നെ ഉള്ളത് പഴങ്ങൾ പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കോൾപ്പാടത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിൽ ആ ഒരു പാടത്ത് പിന്നെ പച്ചക്കറിയാണ് ഇടവിളയായിട്ട് കൃഷി ചെയ്യുക അപ്പോൾ അതിൽ തന്നെ വള്ളി വർഗങ്ങളായിട്ടുള്ള മത്തൻ പടവലം കുമ്പളങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട് പിന്നെ തൃശൂരിൽ ഒരു പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യമാണ് പയറ് അതായത് എല്ലാ ഓരോ വീട്ടിലും ഓരോ പറമ്പിലെങ്കിലും പയറ് നടാറുണ്ട് അപ്പം പയറും ഒരു പ്രധാന വിളയാണ് അത് വീട്ടാവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്